ഹലോ ആ പറഞ്ഞുകൊള്ളൂ ആ അതെ അതെ ആ ഞാനിപ്പോള് മാനന്തവാടിയിലാണുള്ളത് എവിടെയാണ് ഇപ്പോള് കേടായി കിടക്കുന്നത് ആണോ രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്തുനോക്കിയായിരുന്നുവോ ആ ഞാന് മാനന്തവാടിയിലാണുള്ളത് ഞാനെന്തായാലും വരാം കുറച്ച് ടൈമെടുക്കും ഒരു പത്ത് മിനിറ്റ് ആണോ ആ അങ്ങനെയാണെങ്കില് ആ ഞാന് പെട്ടെന്ന് വരാം ഞാന് ഇവിടെയൊരു സ്റ്റേഷണറിയില് വന്നിരിക്കുകയാണ് കുറച്ച് സാധനം മേടിക്കാന് വേണ്ടി വന്നതായിരുന്നു എന്നാല് ഞാന് പെട്ടെന്ന് വരാം എൻ്റെ നമ്പര് ഞാൻ പറഞ്ഞുതന്നേക്കാം ഒന്ന് നോട്ട് ചെയ്തുകൊള്ളൂ ഇത് നമ്മുടെ മുതലാളിയുടെ നമ്പറാണ് എൻ്റെ നമ്പര് ഞാന് പറയാം തൊണ്ണൂറ്റിയേഴ് വാട്സപ്പ് ചെയ്താല് മതിയോ ആ എന്നാല് ഞാന് വാട്സപ്പ് ചെയ്തിട്ടേക്കാം

എവിടെ നിന്നാണ് എടുത്തത് ഏതാണ് സ്ഥലം വണ്ടിയെടുത്തത് ആ ഇപ്പോള് എടുത്തിട്ട് കുറെയായോ ഒരു വർഷമായോ ഒന്നര വർഷം മ് മ് ആ അങ്ങനെ ആ എന്നാല് ഞാനെന്തായാലും പെട്ടെന്ന് വരാന് നോക്കാം ഞാന് മാനന്തവാടി ഇപ്പോള് എത്തിയതേയുണ്ടായിരുന്നുള്ളൂ എന്തായാലും ഞാന് നോക്കട്ടെ പെട്ടെന്ന് വരാം നിങ്ങള് അവിടെത്തന്നെ വെയ്റ്റ് ചെയ്യൂ ആ എന്നാല് ഞാന് പോയി പെട്ടെന്ന് വരാം എന്നാല് ഞാന് പെട്ടെന്ന് വരാന് നോക്കാം നമ്പര് ഞാന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ ആ പെട്ടെന്ന് വരാം പെട്ടെന്ന് വരാം നിങ്ങളുടെ പേരും കൂടെയൊന്ന് പറയുമോ ആ ഓക്കെ ഞാന് എന്നാല് പെട്ടെന്ന് വരാം

ആ ഒന്ന് വാട്സപ്പിലേക്കിട്ടു തന്നേക്കൂ ഞാന് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കേട്ടോ